എഫ് എം റേഡിയോയിലെ ഹലോ പ്രീയഗീതം രഞ്ജിനി പോലെയുള്ള പരിപാടികൾ എനിക്ക് ഒരുപാട് ഇഷ്ട്ടമാണ് സംഗീതം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എഫ് എം റേഡിയോയിലെ അധികം സംഗീത പരിപാടികൾ കേൾക്കാറുണ്ട് എന്റെ വീട്ടിൽ ദിവസവും രാവിലെ ഒരു ആറു മണിക്ക് റേഡിയോ വച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആറര വരെ അധിക സമയവും റേഡിയോ ഓണ് ആയിരിക്കും അതുകൊണ്ട് റേഡിയോയിൽ അധിക പരിപാടിയും ഞാന് കേൾക്കാറുണ്ട് സംഗീത പരിപാടികൾ ആസ്വദിക്കാറുണ്ട് പ്രഭാത ഭേരി അതുപോലെയുള്ള പരിപാടികൾ എല്ലാ ദിവസവും കേൾക്കാറുണ്ട് ടി വി പ്രോഗ്രാമും കാണാറുണ്ടെങ്കിലും ടി വി പ്രോഗ്രാമിലെ സംഗീത പരിപാടികളാണ് കൂടുതലും കാണാറുള്ളത് ടി വി പ്രോഗ്രാം അധിക സമയം കണ്ടിരിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് എല്ലാ ദിവസവും കൂടുതൽ സമയം വീട്ടിലുള്ള സമയത്തിൽ കൂടുതൽ സമയവും റേഡിയോ പരിപാടി ആണ് കേൾക്കുന്നത് റേഡിയോ പരിപാടിയാവുമ്പോൾ ഞങ്ങളുടെ വേറെ മറ്റു തിരക്കുകളുടെ ഇടയിൽ ആണെങ്കിൽ പോലും ഞങ്ങൾക്കത് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് അതിലെ സംഗീത പരിപാടികൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ടി വിയിലാവുമ്പോൾ അധിക സമയവും ടി വി സീരിയല് അത് സിനിമയൊക്കെ ആയിരിക്കും അതൊന്നും കണ്ടിരിക്കാൻ അധികം സമയം കിട്ടാറില്ല അതുകൊണ്ട് റേഡിയോയിലെ സംഗീത പരിപാടികൾ തന്നെയാണ് കൂടുതലും ആസ്വദിക്കാറുള്ളത് അതിൽ കൂടുതലും പല റേഡിയോയിലുള്ള പല പ്രോഗ്രാമ് കേൾക്കാറുണ്ടെങ്കിലും അത് കൂടുതലും സംഗീത പരിപാടി തന്നെയാണ് വീട് എന്റെ വീട്ടിലെല്ലാവരും റേഡിയോ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അച്ഛനും അമ്മയും എല്ലാവരും സഹോദരി ആണെങ്കിലും സംഗീതം എല്ലാവരും ആസ്വദിക്കും ആസ്വദിക്കാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ട്ടമാണ് അതുകൊണ്ട് അധികം എല്ലാ ദിവസവും എഴുന്നേറ്റ ഉടൻ തന്നെ റേഡിയോ ലൂടെ റേഡിയോയിലൂടെ തന്നെയാണ് ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ എണ്ണീറ്റപാട് ഫസ്റ്റ് റേഡിയോ വച്ചിട്ടാണ് ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ അത് അതുകൊണ്ട് തന്നെ ഞാൻ റേഡിയോ ഞാന് അധികം വയ്ക്കാറില്ലെങ്കിലും അച്ഛനും അമ്മയും വീട്ടിൽ വയ്ക്കുന്നുള്ളത് കൊണ്ട് ഞാൻ അധികവും പരിപാടികള് ശ്രദ്ധിക്കാറുണ്ട് അത് അത് വയ്ക്കും വയ്ക്കുമ്പോൾ ഈ സംഗീത പരിപാടി ആസ്വദിക്കുന്നത്തിനൊപ്പം തന്നെ അധികം ഞങ്ങൾ പുറത്ത് പോവുന്ന സമയത്ത് ഒരു എട്ടു മണിക്കൊക്കെ പുറത്തു പോവുമ്പോൾ നിങ്ങളുടെ വാഹനത്തിന്റെ സമയം ഇപ്പോൾ എട്ട് മണിക്ക് പാട്ട് തുടങ്ങുന്നത് അങ്ങനെയൊക്കെ കണക്കാക്കിയാണ് അമ്മയൊക്കെ പുറത്ത് പോകുമ്പോൾ എട്ടു മണിയുടെ പാട്ട് തുടങ്ങി അപ്പോൾ ബസിനു സമയമായി എന്ന് പറഞ്ഞാൽ അതെല്ലാം നോക്കി വച്ചിട്ടാണ് അമ്മ പുറത്തു പോവുന്നത് അപ്പോൾ ശരിക്കും അത് ഒരു സംഗീതാസ്വാദനത്തിനൊപ്പം തന്നെ സമയം അറിയാനുള്ള ഒരു ഉപാധി കൂടിയാണ് അമ്മയ്ക്ക്